അപ്പോൾ അമ്മടെ നമ്മുടെ പ്രദേശത്ത് ആളുകള് വായനശാലകള് ഉപയോഗിക്കാറുണ്ട് അത് ഇത്തിരി പ്രായമായവരൊക്കെ അങ്ങനെ ഉള്ളവരാണ് കൂടുതലും വായനശാലകളില് പൂകാറുള്ളത് അല്ലാത്ത ഒത്തി വ് പ്രായമാ അല് പ്രായം കുറഞ്ഞ ആളുകളൊക്കെ ടെക്സ്റ്റുകളൊക്കെ മേടിച്ചും അല്ലാതെ ഓണ്ലൈനിൽ നിന്നൊക്കെ വായിക്കാറുണ്ട് അതു പോലെ തന്നെ ഞാന് എന്റെ പഠനകാല സമയത്ത് ഞാനൊരുപാട് ടെക്സ്റ്റുകള് വായിച്ചിട്ടുണ്ട് ഞാന് ഒരുപാട് ബുക്കുകളും വായിച്ചിട്ടുണ്ട് ലൈബ്രറിയിൽ പിന്നെ ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് നൊ ടെക്സ്റ്റുകളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കഥാ ബുക്കുകള് എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം റ്റെ അക്വന്ച്ചറസ്സായിട്ടുള്ള സ്റ്റോറികളൊ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വായിക്കാനാണ് എനിക്കൊരുപാട് എനിക്ക് കൂടുതലായിട്ട് താത്പര്യമുള്ളത് പിന്നെ ആളുകള് നമ്മടവിടുത്തെ ആളുകള് കൂടുതലും വായനശാലയില് നിക് ഇരുന്നു വായിക്കാറില്ല ടെക്സ്റ്റൊക്കെ വാങ്ങിക്കോണ്ട് വീട്ടില് പോയി അവിടിരുന്നു വായിക്കാറാണ് കൂടുതൽ പതിവ് പിന്നെ ജോലി അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകളും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കില് അവർ അവിടെ വന്നിരുന്നു വായിക്കാറുണ്ട് ഞാന് കൂടുതലും മേടിച്ചു കൊണ്ട് പോകുന്നത് മാത്രമെ ഞാന് കണ്ടിട്ടുള്ളു പിന്നെ ലൈബ്രറി സ്കൂളിൽ ഒ അമ്മളൊരുപാട് പ്രാവശ്യം വായി ലൈബ്രറിയിൽ വായിക്കാം അമ്മക്ക് പീരീട് തന്നെയുണ്ടായിരുന്നു ലൈബ്രറി പിരീടെന്നു പറഞ്ഞ് അപ്പം ആ സമയത്തു നമ്മൾ ലൈബ്രറിയിൽ ടെക്സ്റ്റൊക്കെ വായിക്കാന് വേണ്ടി പോകുമായിരുന്നു പിന്നെ നം ലൈബ്രറിയിൽ പിന്നെ ടെക്സ്റ്റ്മൻ ഞാനൊരുപാട് ടെക്സ്റ്റുകള് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് അഡ്വെൻച്ചറസ്സായിട്ടുള്ള സ്റ്റോറീസ് വായിക്കാന് അങ്ങനെ സ്റ്റോറീസിനായിട്ട് നമ്മളിങ്ങനെ നോക്കും അഡ്വെന്ച്ചറസ്സായിട്ടുള്ള സ്റ്റോറീസ് ഏതൊക്കെയാണ് എന്ന് പിന്നെ ഇപ്പോഴും ഞാന് ടെക്സ്റ്റുകൾ വായിക്കും ഓണ്ലൈനിൽ നിന്നൊക്കെ അഡ്വെന്ച്ചറസ് സ്റ്റോറീസൊക്കെ ആയിട്ട് എടുത്തു ഞാനിപ്പോഴും വായിക്കാറുണ്ട് എനിക്ക് അഡ്വെൻച്ചറസ്സായിട്ടുള്ള സ്റ്റോറീസൊക്കെ ഒരുപാടിഷ്ടമാണ് അപ്പോൾ എനിക്കാ ഇത്രയാണ് പറയാനുള്ളത്